ട്രേഡ് യൂണിയനുകൾ കാർഷിക മേഖലക്ക് ഭീക്ഷണി ഉയർത്തുവെന്നാക്ഷേപം നമ്മള് വളരെ നാളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ട്രേഡ് യൂണിയനുകളുടെ ഉദ്ദേശ്യശുദ്ധി എന്താണ് എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത് സ്വാർത്ഥ താൽപര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴ് ട്രേഡ് യൂണിയൻ കാർഷിക മേഖലക്ക് ഭീഷിണിയായി മാറുന്നു എന്നാണ് നമ്മള് കാണുക സംഘടിതമായിട്ട് നിന്ന് കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ തകർക്കുന്ന രീതിയിലേക്ക് അത് മുന്നോട്ട് പോകുമ്പോഴാണ് അത് കാർഷിക മേഖലയ്ക്ക് ഭീക്ഷണി ആയിട്ട് മാറുന്നത് ശരിക്കും ട്രേഡ് യൂണിയനുകൾ കാർഷിക മേഖലയ്ക്ക് തുണ നൽകേണ്ട അല്ലങ്കിൽ പിന്തുണ നൽകേണ്ട ഒന്നാണ് അതിന് പകരമായിട്ട് അവര് കാർഷിക മേഖല തകർക്കുന്ന തരത്തില് ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുമ്പോഴ് ഈ ജോലി ചെയ്യുന്ന ആളുകൾ അവര് യൂണിയനുകളുണ്ടാക്കിയിട്ട് ആ യൂണിയനിൽ കാർഷിക മേഖല നിലനിൽക്കില്ല തരത്തിലുള്ള വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ആവശ്യപ്പെടുകയും ആത്മാർഥത ഇല്ലാതെ തൊഴിൽ ചെയ്യുകയും നന്നായിട്ട് തൊഴില് ചെയ്യാതിരിക്കയും ചെയ്യുമ്പോഴ് അത് കാർഷിക മേഖലക്ക് അത് വൻ ഭീക്ഷണി ആയിട്ട് മാറുന്നു ഉദാഹരണമായിട്ട് കുട്ടനാട് നെൽകൃഷിയൊക്കെ നടത്തി നെല്ല് കൊയ്യാറാകുമ്പോഴ് യന്ത്ര ഉപയോഗിച്ച് അത് കൊയ്തെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴ് കൊയ്ത്ത് യന്ത്രമൊക്കെ വരുമ്പോഴ് ട്രേഡ് യൂണിയനുകളതിനെ ശക്തമായി എതിർക്കുകയും അതേസമയം അവര് നിശ്ചയ സമയത്ത് ഈ നെല്ല് കൊയ്തെടുക്കാനുള്ള സംരംഭത്തിൽ പങ്കാളികളാകാതിരിക്കുകയും ചെയ്തുകൊണ്ട് അവര് പ്രവർത്തിക്കുമ്പോഴ് അത് കാർഷിക മേഖലയ്ക്ക് ഭീക്ഷണി ആകുന്നു എന്നതിനേക്കാളുപരി മനുഷ്യ സമൂഹത്തോട് ചെയ്യുന്ന വലിയ ഒരു ക്രൂരത കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും നെല്ല് സമയത്ത് കൊയ്തെടുക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് കൊയ്ത്ത് യന്ത്രമുപയോഗിച്ച് നിശ്ചിത സമയത്തിനുള്ളില് അത് കൊയ്തെടുത്താൽ മാത്രമേ അത് കർഷകർക്ക് പ്രയോജനം ലഭിക്കുകയുള്ളു അല്ലെങ്കിൽ ആളുകളതുപോലെ മനുഷ്യ പ്രയത്നം നടത്തിയാൽ മാത്രമേ നിശ്ചിത സമയത്തിനുള്ളില് നെല്ല് കൊയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകുമ്പോഴ് അത് കാർഷിക മേഖലക്ക് വലിയ തിരിച്ചടിയാകുന്നു നെൽകൃഷിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ള പല മേഖലകളിലും ഈ ട്രേഡ് യൂണിയനുകൾ ചെയ്യുന്ന ആ ക്രൂരമായ പ്രവർത്തികള് നമുക്ക് ആ പലപ്പോഴും സമൂഹത്തിന് ഒരു വിനയായിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് വളരെ നല്ല രീതിയില് ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ട്രേഡ് യൂണിയനുകള് തൊഴിലാളികളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളില് സപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരുടെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഡിമാൻഡുകള് വെക്ക്കയും ചെയ്യുമ്പോഴ് അത് മേഖലകളെ കാർഷിക മേഖല മാത്രമല്ല മറ്റുള്ള മേഖലകളെയും തകർക്കുന്നു എന്നുള്ള വസ്തുത നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ആളുകള് സത്യസന്ധതയോടെ കൃത്യനിഷ്ഠയോടെ ജോലി ചെയ്തിട്ട് അർഹമായ കൂലി ലഭിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് ട്രേഡ് യൂണിയനുകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടത് അല്ലാതെ ട്രേഡ് യൂണിയനുകൾ അനാവശ്യമായ അവകാശവാദങ്ങളുന്നയിച്ചുകൊണ്ട് ജോലിയെ തടസപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യാതെ വേതനമാവശ്യപ്പെട്ടുകൊണ്ടോക്കെ ഉള്ള നടത്തുന്ന സമരങ്ങളും ഇടപെടലുകളും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പം അങ്ങനെയുള്ള സംഭവങ്ങള് നടക്കുമ്പോഴ് അത് കാർഷിക മേഖലക്ക് വൻ തിരിച്ചടി ആകാറുണ്ട് കാർഷിക മേഖലയെ സംബന്ധിച്ച് അതിൻ്റെ വിളവുകള് സമയത്ത് എടുത്തില്ലെങ്കിൽ ആ വിളവുകള് സമയാ സമയങ്ങളില് എടുത്ത് അത് പ്രോസസ് ചെയ്ത് അത് വിപണയിലെത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ കാർഷിക മേഖലക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ അങ്ങനെ ചെയ്യേണ്ട സന്ദർഭങ്ങളില് ട്രേഡ് യൂണിയനുകൾ ഇടപെടുകയും ആ പ്രവർത്തനത്തെ തടസപ്പെടുത്തുകയും ചെയ്യുമ്പോഴ് ആ വിളകള് നശിച്ച് പോവുകയും അത് കർഷകർക്ക് ഉദ്ദേശിക്കുന്ന വില ലഭിക്കാതെ വരികയും കാർഷിക മേഖലയും അത് തകർക്കുകയും ചെയ്യുന്ന സംഭവങ്ങള് നമ്മള് അനുദിനം ജീവിതത്തില് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മള് പലപ്പോഴും നേരിട്ട് അനുഭവിക്കുന്നുണ്ട് കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ശ്രമിക്കേണ്ട ആളുകള് നാടിൻ്റെ നട്ടെല്ലായിട്ട് നിലനിൽക്ക്ന്ന കർഷകരെ സംരക്ഷിക്കേണ്ട നമ്മള് കർഷകരെ സംരക്ഷിക്കാതെ കർഷകർക്ക് ആവശ്യമായ പിന്തുണ നൽകാതെ കാർഷിക വിളകള് സമയത്ത് വിളവെടുക്കുന്നതിനും അത് വിപണിയിലെത്തിക്കുന്നതിനുമൊക്കെയുള്ള സംവിധാനങ്ങൾക്ക് തടസമായി നിന്നുകൊണ്ട് ഈ ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുമ്പോഴ് അത് കാർഷിക മേഖലയ്ക്ക് വലിയ ഭീക്ഷണി ഉയർത്തുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെയുള്ള സംരംഭങ്ങള് നമ്മള് എതിർക്കുകയും അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യേണ്ടതായിട്ട് ഉണ്ട്